ഇപ്പം കുടുംബത്തിലെ സ്ത്രീകൾ മത്സ്യബന്ധനത്തിന് പോകാറൊന്നുമില്ല കാരണമെന്താന്ന് വച്ചുകഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ധൈര്യം കാര്യങ്ങളൊക്കെ വേണം ഇപ്പം കടൽ കണ്ടാൽ ചിലർക്ക് പേടീം കാര്യങ്ങളൊക്കെയുണ്ടാവും പിന്നെ ഇപ്പം നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണം അപ്പം അത് മെയിനായിട്ടുള്ളത് ആണുങ്ങൾക്ക് മാത്രമാണ് ഇപ്പമൊരു കൊമ്പൻ സ്രാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വലേലും ഇതിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് വലിച്ച് കേറ്റാനുള്ളൊരു ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത് സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് മെയിൻ ആയിട്ട് കൂടുതലായിട്ടും ആണുങ്ങളാണ് പോവാറ് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഇപ്പോൾ നമ്മളിപ്പം പിടിച്ചു കൊണ്ടുവന്ന മീനിനെക്കെ വേറൊരു കുട്ടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു വരുമാനോം കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ചന്തേക്കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ സ്ത്രീകളായിരിക്കും നമ്മൾ ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇതിൽ പോയിട്ട് പിടിച്ചിട്ട് വരാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും കൂടുതൽ ആയിട്ടും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലിൽ പോകുന്ന ഇതും പിന്നെ അവർക്ക് ആ ഒരു ഒരു ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സുഖമായിട്ട് മീനിനെയൊക്കെ പിടിച്ചുകൊണ്ടു വന്നിട്ട് കടലിൽ കൊണ്ട് നമ്മുടെ കരയിൽ കൊണ്ട് വെക്കാനുള്ള ഇതൊക്കെയുണ്ട്